ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വിവിധ തരം മാധ്യമങ്ങളും കാര്യങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയില് ഉണ്ട് കോഴിക്കോട് ജില്ലയില് മാത്രല്ല നമ്മുടെ സംസ്ഥാനത്തു തന്നെ വിവിധതരം മാധ്യമങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇപ്പോൾ ഓരോ ജില്ലയിലും ഇപ്പം മാതൃഭൂമിയാണെങ്കിലും മാതൃഭൂമി മനോരമ അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ ഓരോ ജില്ലയിലും അവരവരുടെ വാർത്തകളാണ് കൂടുതലായിട്ടും കൊടുക്കുക നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയാണെങ്കിൽ കോഴിക്കോട് ജില്ലേൻ്റെ ഇല്ലെങ്കില് മലപ്പുറം ജില്ലയിലാണെങ്കിൽ മലപ്പുറത്തെ വാർത്തകളാണ് കൂടുതലായിട്ടും കൊടുക്കുക അങ്ങനെ നമുക്ക് വേണമെങ്കില് എല്ലാ കാര്യങ്ങളും ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് കൂടുതലായിട്ടും സഹായിക്കുന്നത് അത് നമുക്കിപ്പോൾ എന്താ പറയുക ഓരോ നമ്മളിപ്പോൾ മലപ്പുറത്തുള്ള ഒരാളാണെങ്കില് മലപ്പുറത്തെ ക്കെ നമുക്ക് കോഴിക്കോടിൻ്റെ വർത്തകള് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് സാധിക്കും അങ്ങനത്തെ പലരീതിലുള്ള വർത്തകള് ചിലപ്പം ഒരു പേജിലോ രണ്ട് പേജിലൊക്കെയാണ് കൂടുതലായിട്ടും കൊടുക്കുക അങ്ങനെയുള്ള മാധ്യമങ്ങള് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട് പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും എല്ലാവരേയും അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മള് മാധ്യമങ്ങളാണ് കൂടുതലായിട്ടും യൂസെയ്യുക കാരണം ഇപ്പം സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടിയോ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കില് നമുക്ക് മാധ്യമം വഴിയാണ് നമുക്കറിയുക അല്ലാണ്ട് നമുക്ക് അറിയാൻ വേണ്ടി വേറെ മാർഗ്ഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്കിപ്പോൾ ഓരോരുത്തരേയും എന്താ പറയുക സർക്കാരൊന്നും വിളിച്ചു പറയുന്നൊരു ടൈപ്പല്ല അങ്ങനെ നടക്കൂല്ലലോ അപ്പം നമുക്ക് കൂടുതലായിട്ടും ചെയ്യുന്നതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോഴിക്കോട് ജില്ലയില് ഉള്ളത് മാധ്യമങ്ങള്